ആ അതെ പറയൂ ആ പറ ഗൗരി ആ പറ

ആ വാക്സിൻസ് എടുത്തില്ലായിരുന്നോ ഇപ്പോൾ എത്ര വയസ്സായി എന്നറിയുമോ പൂച്ചയ്ക്ക് മൂന്ന് മാസം അല്ലേ ഒരു എന്താണ് ഈ ഫുഡിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ വാക്സിൻസ് ഇപ്പോൾ ഗവൺമെൻറ്റ് തരുന്നുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ചിലത് എടുക്കാണ്ടിരുന്നാലും വരും എന്താണ് നോർമലി കൊടുക്കണത് കഴിക്കാൻ വേണ്ടിയിട്ട് നോർമൽ പെറ്റ് ഫുഡ് ആണ് കൊടുക്കുന്നത് ഏതാണ് ലൈക്ക് ഫ്ലേവറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കലുണ്ടോ ചിക്കൻ അല്ല ചിക്കൻ ഫിഷ് അങ്ങനെ ഏത് ഫ്ലേവർ ആണ് കൊടുക്കൽ

ചിലപ്പോൾ ചില ലൈക്ക് ബേബി ക്യാറ്റ്സിൽ ചിലപ്പോൾ അവർക്ക് പറ്റുന്നുണ്ടാവില്ല ചിലതിൻ്റെ ഫ്ലേവർ അപ്പോൾ ചിലപ്പോൾ അവർക്ക് അതൊന്ന് മാറ്റി കൊടുക്കേണ്ടി വരും ഫിഷ് മീറ്റ് അവൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ ചിക്കൻ മീറ്റ് എങ്ങാനും മാറ്റി കൊടുക്കേണ്ടി വരും പോരാത്തതിന് വാക്സിൻ എടുക്കാണ്ട് വന്നാലും ഇത് ആ വരും പിന്നെ മൂന്ന് മാസമല്ലേ ആയിട്ടുള്ളൂ ഒരു കൊല്ലമൊക്കെ എടുക്കും ശരിക്ക് ക്യാറ്റ്സിനൊക്കെ ഒന്ന് മിംഗിൾ ആയി വരാൻ അതൊക്കെ ഭയങ്കര സെപ്പറേഷൻ ആംഗ്സൈറ്റി ഉള്ള മൃഗങ്ങളാണ് അപ്പോൾ ചെറുതല്ലേ വെറൈറ്റി ട്രൈ ചെയ്യേണ്ട കാരണം കുഞ്ഞി പൂച്ചയല്ലേ അതിന് അതിനൊരു മിൽക്ക് പ്രിഫെർ ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ ആദ്യം വാങ്ങിയപ്പോൾ ആ ഒരു മിൽക്കും അതിൻ്റെ ഫുഡ്ഡും മാത്രം കൊടുത്താൽ മതി അപ്പോൾ എന്ത് കൊടുക്കുകയാണെങ്കിലും അത് സ്ഥിരമായിട്ട് കൊടുക്കുക അപ്പോൾ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മീറ്റ് മാറ്റി നോക്കുക എപ്പോളും എപ്പോളും മാറ്റി നോക്കേണ്ട കേട്ടോ ഈ മാസത്തെ നമുക്ക് ഫുൾ ആണ് അപ്പോൾ അടുത്ത മാസം വരാൻ പറ്റുമോ ഈ മാസത്തെ വാക്സിൻ എടുത്തതാണോ വാക്സിനേഷൻ എടുത്തതാണോ ആ അപ്പോൾ ആ വന്നോ വന്നോ ആ ഈ മാസം ഒരു ഇരുപത്താറാം തീയതി ഒക്കെ ആയിട്ട് വന്നോ കേട്ടോ അപ്പോൾ വാക്സിനും കൂടെ എടുക്കാം അപ്പോൾ പുറത്തൊന്നും പോവാൻ കുഴപ്പമുണ്ടാവില്ല ഉം ശരി താങ്ക് യൂ